ഹലോ സെക്യൂരിറ്റി ആര് സെ ആര് ഞാന് ഇടുക്കിയിൽ നിന്ന് ആയിരുന്നു സെക്കു സെക്യൂരിറ്റി ആയിരുന്നോ സെക്യൂരിറ്റി ആയിരുന്നോ ഞാന് ഇ ഞാന് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് എന്റെ ഒരു ബാഗ് ടേബിളിൽ വെച്ചായിരുന്നു അതവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കാമോ അവിടെ ടേബിളില് തന്നെ ഉണ്ട് മറന്ന് വെച്ചതായിരുന്നു ഇല്ലേ ഞാൻ ടേബിളിലാണല്ലോ വെച്ചത് അടിയിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാമോ അടിയിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാമോ ടേബിള്ന്റ അടിയിൽ വല്ലതും അവിടെ എവിടേയും ഫ്രീ ആണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമോ കറുപ്പ് ആയിരുന്നു

ചെറിയ ബാഗാണ് കയ്യിൽ പിടിക്കുന്നത് കൂട്ട് ബാഗ് ആയിരുന്നു ആ ഓക്കെ വേഗം നോക്കിയിട്ട് പറയാമോ അ അത് അറിയില്ല ഞാൻ ഓർക്കുന്നില്ല

ഓക്കെ ഓക്കെ ഞാന് ലഞ്ച് കഴിച്ചപ്പം മറന്ന് പോയതായിരുന്നു ഒരു ബ്ലാക്ക് ആയിരുന്നു അതിന് അതിനകത്തെന്റെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു കാശൊക്കെ ഉള്ളതായിരുന്നു ഓക്കെ കുറച്ച് സര്ട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ആ ക്യാബിനിൽ ക്യാബിനിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാമോ ആ മൂന്നാമത്തെ ഓക്കെ ഓക്കെ ഓക്കെ

കറുപ്പ് മാത്രം ഉള്ളൂ ഓ ഓക്കെ അതിന് ആ മറന്ന് വെച്ചാൽ ഫൈനോ നിങ്ങ നിങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ടോ ആ ഫയലും ഉണ്ടായിരുന്നു ആ അതെ ആ ആ അതിനകത്ത് അതിനകത്ത് നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ